ഹലോ ഹലോ ഇത് മേക്കാടൻസ് ടെക്സ്റ്റൈൽ ഷോപ്പല്ലേ ആ ഞങ്ങൾ ഇവിടെ എറണാകുളത്തിന്നാണ് വിളിക്കുന്നത് ആ അവിടെ ഓണത്തിന് ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ വേണ്ടീട്ടായിരുന്നു ആ നിങ്ങളൊന്ന് എന്തൊക്കെ ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ തന്നെ ഇപ്പോൾ വാട്സാപ്പിൽ ഫോട്ടോ ഇട്ടുകഴിഞ്ഞാൽ ഞങ്ങൾ ചൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് തരാമായിരുന്നു ഓ ഉണ്ട് ഉണ്ട് ആയിക്കോട്ടെ നമുക്കവിടെ ആ അവിടെ സെറ്റ് സാരീ വേണമായിരുന്നു ഒരു പ്ലെയിൻ പിന്നെ ധാവണിയൊക്കെ ഉണ്ടോ ധാവണീൻ്റെ പിന്നെ ഈ പാവാടേം ബ്ലൗസും പിള്ളേരുടെ ഒക്കെ അതൊക്കെ എത്രെ റേറ്റ് വരുന്നവിടെ ധാവണിക്കൊക്കെ എത്ര റേറ്റ് ആ ആഹ് ധാവണിക്കൊക്കെയോ ഓണത്തിന് ഓഫറ് വല്ലതുമുണ്ടോ ആ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞങ്ങൾ ഫാമിലിക്ക് മൊത്തത്തിലെടുക്കാൻ വേണ്ടീട്ടായിരുന്നു ആ അപ്പോൾ അതിനുവേണ്ടി നിങ്ങളൊന്ന് ജസ്റ്റ് അതിൻ്റെ പിക്കൊന്ന് വാട്ട്സപ്പില് സെൻഡ് ചെയ്താൽ മതി ഞങ്ങൾ ചൂസ് ചെയ്യാം അപ്പോൾ ജസ്റ്റ് ചൂസ് ചെയ്ത് ഡ്രെസ്സൊക്കെ ജസ്റ്റോന്ന് എടുത്തുവെച്ചാൽ മതി ഞങ്ങൾ വന്നെടുത്തോളാം ഞാനൊരൂ രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോൾ എന്തായാലും വരും അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യണം ഓ ഓ ഓ എത്ര രൂപയായിരുന്നു ആ ആയിക്കോട്ടെ തന്നേക്കാം തന്നേക്കാം നിങ്ങൾ ജസ്റ്റ് എടുത്ത് വെച്ചായി ഇനി വാട്ട്സാപ്പില് പിക്ക് ഇട്ടേക്കേ കളറ് സെറ്റ് സാരിക്ക് നോർമൽ വൈറ്റ് മതി ഈ ഗോൾഡൻ കരയൊക്കെ വരുന്നില്ലേ അത് മതി ആ പിന്നെ ധാവണീൻ്റെ അത്യാവശ്യം നല്ല ഇത് എടുത്ത് ഇട്ടേക്ക് ഞാൻ നോക്കീട്ട് പറയാം ആ